ഞാൻ നേരത്തേ പിന്നേ നിങ്ങൾ എന്നെ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഓട്ടോയിൽ അഹ് പിന്നെ ട്രെയിൻറ്റെ അഹ് അപ്പോൾ അതിൻ്റെ വിവരം പറയാൻ വേണ്ടിട്ട എൻറ്റെ പിൻ ട്രെയിൻ ഒക്കെ പോയി ട്രെയിൻ ഒക്കെ വിട്ടുപോയി മെയിൻ ആയിട്ട് നിങ്ങൾ കാരണമാണ് ഞാൻ കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ എത്താൻ പറഞ്ഞാൽ നിങ്ങൾ എത്തിയത് എട്ടേ മുക്കാലാകുമ്പോൾ അങ്ങനെ ബ്ലോക്ക് കാര്യങ്ങൾ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറൊരു വണ്ടി വിളിച്ചു പോകില്ലായിരുന്നോ അപ്പോൾ എൻറ്റെ ട്രെയിൻ മിസ് ആയി എനിക്ക് ഒരു ജോബിൻ്റെ ഇൻറ്റെർവ്യൂന് ആയിരുന്നു ഏകദേശം അത് ഫിക്സ് ആയ ജോബ് ആയിരുന്നു ഇൻറ്റെർവ്യൂ കൂടി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരാൾ കാരണം ആണ് എൻ്റെ അത് നഷ്ടമായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ആ പൈസയും പോയി നിങ്ങൾക്ക് തന്ന പൈസയും പോയി ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ പറ്റില്ല എന്ന് പറയാ വേറെ ആരെങ്കിലെയും ഏൽപ്പിക്കുക എനിക്ക് എൻ്റെ ദേഷ്യത്തിന് വേണ്ടി നിങ്ങളോട് ഇതല്ല പറയേണ്ടത് വേറെ ആണ് പറയേണ്ടത് എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ ഇത് മാത്രം പറയുന്നുള്ളു